തയ്യൽ എനിക്കിഷ്ടമാണ് ഞാൻ പഠിച്ചതാണ് നല്ല തയ്യൽ പഠിച്ചെങ്കിലും ഞാൻ ചുരിദാറോ മറ്റൊ ഒന്നും ഞാൻ വേറൊന്നും തയ്ക്കില്ല ബ്ലൗസിനോടായിരുന്നു എനിക്ക് ഇഷ്ടവും കമ്പവും അതിനോടാണ് ഞാൻ സാരി ബ്ലൗസ് തയ്ക്കും തയ്ച്ചു കൊടുക്കാറുമുണ്ട് നല്ലവണ്ണം അത് അത് എനിക്കും തയ്ക്കുന്ന ഞാൻ എനിക്ക് ഞാൻ തയ്ച്ചെങ്കിൽ മാത്രമേ എനിക്കത് ഇഷ്ടപ്പെടുകയുള്ളൂ അങ്ങനെ ബ്ലൗസിനോട് എല്ലാവരും പറയും ചുരിദാർ തയ്ക്കാനാണ് എളുപ്പം അത് തയ്ക്കാൻ പക്ഷേ എനിക്ക് ബ്ലൗസായിരുന്നു ഇൻ്ററെസ്റ്റ് ബ്ലൗസ് ഇപ്പോഴും ഇപ്പോഴും ഞാൻ തയ്ക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഞാൻ കുറച്ചൊരു ദിവസങ്ങളായിട്ട് ചുരിദാറും തയ്ക്കുന്നുണ്ട് അത് കാരണം തയ്യൽ നല്ല ഒരു ഒരു മിഷൻ ഒരു വീടിന് ആവശ്യമാണ് അത് നല്ല രീതിയിൽ എന്തെങ്കിലും ഒന്ന് അടിക്കണതിലോ ഒന്ന് തയ്ക്കണതിലോ അതിനായിട്ട് വലിയ കുഴപ്പമില്ലാതെ ആ മെഷനിൽ നമുക്ക് ചെയ്യാം ഒരു കുത്തു വിട്ടത് കൊണ്ട് ഒരു വീട്ടിൽ കൊണ്ടു കൊടുക്കുകയോ വേറൊരാളെ ആശ്രയിക്കുകയോ വേണ്ട അവനവന് തന്നെ അവനവൻ്റെ കാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ